നമ്മൾ സാധാരണ വീടുകളിൽ ആട് പശു കോഴി പന്നി താറാവ് എന്നിവയെ വളർത്താറുണ്ട് ഇതിനെ നമ്മൾ മൃഗവളർത്തൽ എന്നു പറയുന്നത് സാധാരണക്കാരായ നമ്മു നമ്മുടെ വീടുകളിലൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു നാലഞ്ചാടിനെയും രണ്ട് പശുവിനെയും ഒക്കെ വളർത്താം ഇതു വരെ ലാഭകരമാണ് നമുക്ക് ഒരു വരുമാനം കിട്ടുന്നതിനു സഹിക്കുന്നതുമാണ് പിന്നെ നമ്മളെ പറമ്പിലൊക്കെ മാറ്റി മാറ്റി കെട്ടി നമുക്ക് വലിയ ചിലവില്ലാതെ പറമ്പൊക്കെ വൃത്തിയാകുകയും ചെയ്യും പശുവിനൊക്കെ വളർത്തുകയാണെങ്കിൽ ആടിനെ വളത്തുകയാണെങ്കിലും ആടിനു നല്ല ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് വൻ തോതിൽ വളത്തുകാണെങ്കിൽ വലിയ ഫാമായിട്ടു വളർത്താം അതിനു ആൾക്കാരെ നിർത്തി ഇവക്കുള്ള പുല്ലും തീറ്റയുമൊക്കെ ശേഖരിച്ച് ഇവയെ വളർത്താകുന്നതാണ് പറമ്പ് നല്ല വൃത്തിയായിട്ട് കിടക്കും നമുക്ക് കുറച്ചു ലാഭവും കിട്ടും ഇതിനോടു നമുക്ക് സ നമുക്കൊരു സമയം പോകുന്നതിനും നല്ലതാണ് നമുക്ക് മാനസിക സന്തോഷം ലഭിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നാട്ടിലുപയോ കിട്ടുന്ന തീറ്റകളും പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ മതി നമുക്കാടിനെയും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഗവൺമെൻറ്റിൽ നിന്നു നമുക്ക് പുഷ്ടി അങ്ങനെ ഇവർക്ക് കുഴച്ചു കൊടുക്കുന്ന കുറേ തീറ്റ തീറ്റകളൊക്കെ നമുക്ക് വെള്ളത്തിൽ കലക്കി കുഴച്ച് കൊടുക്കാവുന്ന തീറ്റകളൊക്കെ നമുക്ക് ലഭിക്കും പകുതി വിലക്കൊക്കെ ഗവൺമെൻറ്റ് സബ് സബ്സീഡികൾ നമുക്ക് പകുതി വിലക്കു ലഭിക്കുന്നതാണ് പിന്നെ ചില കേസിൽ അതായത് നമ്മൾ സാമ്പത്തികമായിട്ടു പിന്നെ താന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മൃഗങ്ങളെ വളർത്തുന്നതിനുള്ള കൂട് ലഭിക്കുന്നതിനും കൂട് ഉണ്ടാക്കുന്നതിനുള്ള പൈസയും ഗവണ്മെൻറ്റ് സബ്സീഡിയായിട്ടു കൊടുക്കാറുണ്ട് ചിലർക്ക് ആടിനേത്തന്നെ ഫ്രീയായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇവരുടെ മെഡിക്കൽ ഫെസിലിറ്റി നമുക്ക് വല്ല ഈ ആട് പശുവിനെ ഇവക്കൊക്കെ വല്ല അസുഖമൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ മൃഗാശുപത്രിയുണ്ട് അവടെപ്പോയി വിവരം പറഞ്ഞ് ഫ്രീ ആയിട്ട് മെഡിസിൻ നമുക്ക് ലഭിക്കുന്നതാണ് അവർക്ക് നമുക്ക് കൊടുത്താൽ അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി ലഭിക്കുന്നതാണ് പിന്നെ ഈ പശുവിന് ആടിനും ഒക്കെ പാൽ ലഭിക്കും അതു നമുക്ക് വിൽക്കുകയും അങ്ങനെ വരുമാന മാർഗ്ഗവുണ്ടാകും പിന്നെ ഇവയുടെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ നമുക്ക് വിൽക്കാവുന്നതാണ് അങ്ങനെയൊക്കെ നമുക്ക് ഒരു സാധാരണക്കാർക്ക് നല്ല ലാഭകരമായൊരു കാര്യമാണ് കോഴികളെയും ഗാ ഗവണ്മെൻറ്റിൽ നിന്നു പഞ്ചായത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടു ലഭിക്കുന്നുണ്ട് കോഴിയെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കോഴിയാണ് നമുക്ക് ലഭിക്കുന്നത് പെട്ടെന്ന് അസുഖമൊന്നും വരത്തില്ല പിന്നെ നമ്മൾ കൂടൊക്കെ ഉണ്ടാക്കി അവയെ സംരക്ഷിക്കാനും നല്ലൊരു ലാഭകരമായ കാര്യമാണ് കോഴിമുട്ട ഒക്കെ വിൽക്കാൻ പറ്റും നമുക്ക് ലാഭ ലാഭകരമായിട്ടു സാധാരണക്കാർക്കു ജീവിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് പകുതി വിലക്കും കോഴി ലഭിക്കുന്നുണ്ട് പകുതി കോഴിയുടെ തീറ്റയും ലഭിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഫ്രീ ആയിട്ടു കിട്ടും അതു സാമ്പത്തികമായിട്ടു താന്നു നിൽക്കുന്നവർക്കാണ് അവയൊക്കെ ലഭിക്കുന്നത് പിന്നെ പന്നികളെ ചിലർ വളത്താറുണ്ട് അതാകുമ്പം പല കോഴിക്കട അങ്ങനെയുള്ള കടകളിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും വേസ്റ്റ് കൊടുത്ത് ഇതിനെ തീറ്റി വളർത്താനും പറ്റും അപ്പം പന്നികൾ നമുക്കിറച്ചിയായിട്ടു വിൽക്കാൻ അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്താനും പറ്റും അങ്ങനെയൊക്കെ നമുക്കിവയൊക്കെ വളരെ ലാഭകരമായിട്ടു ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ പറമ്പും നമ്മുടെ വീടും വൃത്തിയായി കിടക്കുകയും ചെയ്യും അതിന്റെ കൂടെ ഇങ്ങനെ നമുക്കൊരു വരുമാന മാർഗ്ഗം ചെയ്യാൻ ചെയ്യാനുമുണ്ട് എരുമ പോത്ത് ഇവയൊക്കെ പശുവിനെ വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് പോത്തിനൊക്കെ ആണെങ്കിൽ വലിയ പ്രൊട്ടക്ഷനില്ലെങ്കിലും പ്രതികൂല കാലാവസ്ഥക്കും കാറ്റ് മഴ അങ്ങനെയുള്ള ഉള്ളപ്പം കൂടിയില്ലെങ്കിലും നമുക്ക് പറമ്പിൽക്കൊണ്ടു കെട്ടി അവയെ വളർത്താം അവർക്ക് അവർക്കിങ്ങനെ പെട്ടെന്നസുഖമൊന്നും വരത്തില്ല എരുമയാണെങ്കിൽ നല്ല പാലു ലഭിക്കും നെയ്യ് നെയ്യ് മയമൊക്കെ ഉള്ള പാലു ലഭിക്കും കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് വിൽക്കാനും പറ്റും ഇവരുടെ അങ്ങനെ നമുക്കൊരു നല്ല മാർഗ്ഗ ഒരു വരുമാന മാർഗ്ഗമാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സമ്പ്രദായമാണിത്